ഞാ പച്ചക്കറി കൃഷി നടത്തുകയാണ് അതില് പാവക്കയുണ്ട് തക്കാളിയുണ്ട് ക്യാരറ്റ് ഉണ്ട് അച്ചിങ്ങയുണ്ട് അതേപോലെ തന്നെ കോളിഫ്ലവറുണ്ട് ക്യാബേജ് ഉണ്ട് പിന്നെ പടവലങ്ങ ഉണ്ട് പീച്ചിങ്ങ ഉണ്ട് ഇതൊക്കെ ഉണ്ട് കൂടുതലും ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കും പിന്നെ ജൈവ പച്ചക്കൃഷി പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നത് അപ്പം അടുത്തുള്ള ആൾക്കാരും കുറച്ച് അകലെ ഉള്ള ആൾക്കാരൊക്കെ തേടി വരാറുണ്ട് ബാലൻസ് ഉള്ളത് നമ്മളുടെ അടുത്തുള്ള കടകളിൽ കൊടുക്കുകയാണ് പതിവ് എങ്കിലും മറ്റ് ഇവിടെ ജൈവ പച്ചക്കറി കൃഷിക്ക് വലിയ ഡിമാൻഡാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൈസയും കിട്ടും നമ്മളുടെ പച്ചക്കറികളെല്ലാം എല്ലാം പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും ആവശ്യക്കാർ കൂടുതലാണ് അതനുസരിച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാറില്ല എങ്കിലും കിട്ടുന്ന പച്ചക്കറികളെല്ലാം തന്നെ കൊടുത്ത് തീർത്ത് പൈസ കിട്ടുകയാണ് പതിവ്